ഞങ്ങളുടെ സ്ഥലത്തെയും പ്രദേശത്തെയും കലകൾ സംരക്ഷിക്കുന്നത് അവർ കലകളിലൂടെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് പാരമ്പര്യമായിട്ടുള്ള കലകൾ കൈമാറി കൈമാറി കൊണ്ടു പോകുന്നവരാണ് ഇന്നുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ അവരുടെ കല നശിച്ചു പോകാതിരിക്കാൻ മുന്നോട്ട് കൊണ്ടു പോകുന്നു ചെണ്ടമേളം തകില് തിരുവാതിര മറ്റ് നൃത്തരൂപങ്ങൾ ഇവയെല്ലാം മുന്നോട്ട് പാരമ്പര്യമായിട്ട് ഇപ്പോൾ കൊണ്ടു പോകുന്ന കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപിലത്തെക്കാളും ഇപ്പോൾ ഒന്നുകൂടെ സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങ അമ്പ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങൾ പള്ളികൾ മുതലായവയിലെല്ലാം ഈ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടാണ് അവർ അവരുടെ കലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ തവണയും ഒന്നിലേറെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്